ആ ഹലോ ആരാണ് വിളിച്ചത് അതെ അതെ അതെ ലിറ്റിൽ ഫ്ളവർ സ്കൂൾളെ പ്രിൻസിപ്പളാണ് മേഡം അതാരാണ് ഏത് ക്ലാസ്സിൽ ഏത് ക്ലാസിൽ പഠിക്കുന്നതാണ് മേഡം ഓ ഓക്കെ ഓക്കെ മൂന്നാങ്ക്ളാസ് ബീയി പഠിക്കുന്ന അലീനയുടെ അമ്മ ആ എന്താ എന്താ മേഡം ആ ആ ആ കുട്ടിയെ കുട്ടിയെ അറിയാം കുട്ടിയെ അറിയാം മേഡം കുട്ടിയെ അറിയാം ആ ആ എന്തായിരുന്നു മേഡം കാര്യം ഓ ഓ ഓ ഒരാഴ്ച്ചയാണ് ആ നെ ഒരാഴ്ച്ച ഇപ്പം എങ്ങനെയാണ് മേഡം ഇനീപ്പം പരീക്ഷയൊക്കെ ആകാൻ പോകുന്നു ഏ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ആ ആ ആ ആ ആ അതെ അതെ അതെ അതെ പിന്നെ കോളേജ് പിന്നേ അല്ല സ്കൂൾലേക്കേ സ്കൂൾ ഓഫീസി വന്ന് എന്നെ എന്നെ എന്നെക ണ്ടിട്ട് പിന്നെ കൊച്ചിൻ്റെ ക്ലാസ് ടീച്ചർനെയും കൂടൊന്ന് കണ്ട് കാര്യങ്ങൾ പറയണം കേട്ടോ ഏ ക്ലാസ് ടീച്ചറിൻ്റടുത്ത് കൂടെ കാര്യം പറഞ്ഞിട്ട് പിന്നെ ലീവ് ലെറ്ററ് എഴുതി തരുക ഏ എഴുതി പിന്നെ ക്ലാസ് ടീച്ചർനെ ഒന്ന് കാണിച്ച് ക്ലാസ് ടീച്ചർൻ്റെ

പിന്നെ കുട്ടിക്കത് എല്ലാ നോട്ടും എഴുതിയെടുക്കണം കേട്ടോ കാരണം അതിന് പരീക്ഷ വരുകയാണല്ലോ അപ്പോൾ ആ പരീക്ഷ വരുമ്പോഴത്തേനും പിന്നെ കുഞ്ഞിന് അതത്രേം പഠിച്ചേടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് പിന്നേ നോട്ടെല്ലാം എഴുതി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഏ അതുപോലെ തന്നെ പിന്നെ സംശയമുള്ളതൊക്കെ പിന്നെ ക്ലാസ് ടീച്ചർനേം മോളേ പഠിപ്പിക്കുന്ന മറ്റ് ടീച്ചേഴ്സിനേ ഒക്കെയൊന്ന് വിളിച്ച് എല്ലാം ഒന്ന് പിന്നെ മനസിലായി മനസിലാക്കിയെടുക്കണം കേട്ടോ ഏ എന്നാലേ കാര്യങ്ങൾ പിന്നെ നടക്കുവൊള്ളു കാരണം പരീക്ഷ പരീക്ഷ വരുന്നോണ്ടാ അതാണ് ഏറ്റവും പ്രശ്നം എന്തോ എന്നാ മേഡം ആ പറഞ്ഞേക്കാം അത് പറഞ്ഞേക്കാം ഞാൻ പിന്നെ ആ കുഴപ്പമില്ല നല്ല പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല പഠിക്കുന്ന പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കുന്ന ആളാണ് പഠിക്കും അങ്ങനെ പിന്നെ ടീച്ചേഴ്സോന്നും വേറെ പരാതിയായിട്ടൊന്നും പറഞ്ഞിട്ടില്ല മോളേക്കുറിച്ച് നല്ല ഒരു ആണ് എങ്ങനെയാണ് ഒന്നെന്നേ ശരി എന്നാല്ലേ അത് നാളെ വരാൻ പറ്റുമല്ലോ അല്ലേ നാളെ ഒന്ന് വന്ന് ഒന്ന് ആ ആ ആ ഓക്കെയല്ലേ ആ ശരി ആ ആ ഓക്കെ ഓക്കെ ഓക്കെ വന്നിട്ട് പിന്നെ ക്ലാസ് ടീച്ചർനേയൊന്ന് കണ്ടിട്ട് എന്നെ കാണാനായിട്ട് വന്ന് വരിക കേട്ടോ മേഡം ആ ഓക്കേ